എനിക്ക് അതായത് പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് പാചകം എനിക്കെത്ര ടൈം വേണമെങ്കിലും പാചകം ചെയ്തിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതല് സമയമെടുത്ത് ഉണ്ടാക്കിയത് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് എന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി എന്നും നമ്മളിപ്പോൾ കടയിലൊക്കെ പോയിട്ടല്ലേ കഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മള് കൂടുതലും വീട്ടിലുണ്ടാക്കുന്നേ നെയ്ച്ചോറും ചിക്കൻ കറി അങ്ങനെയുള്ളതൊക്കെ ആണല്ലോ ഉണ്ടാക്കുക അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ആദ്യമേ നമ്മൾ ഈ കടയിലൊക്കെ പോയി ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുടെങ്കിൽ എത്ര നല്ലതായിരുന്നു നമുക്കിത്രയും പൈസയൊന്നും ചിലവാകിലല്ലോ നമ്മളോരഞ്ചാറ് പേരൊക്കെ പോകുമ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളൊരു ബിരിയാണി വീട്ടിൽ വെക്കുന്ന ചില പൈസേനേക്കാളും ചിലവാകും അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു പിന്നെ ഞാനൊരു ദിവസം യൂട്യൂബിങ്ങനെ നോക്കി അപ്പോൾ എല്ലാരുമിങ്ങനെ എന്താ പറയുക നല്ല എളുപ്പാണ് പിന്നെ എൻ്റൊരു ഫ്രണ്ട് പറഞ്ഞു യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ട് ആ ചാനല് നോക്കിയിട്ട് നീ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്ക് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാനത് നോക്കി എല്ലാം എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ച് ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി അടിപൊളിയായിരുന്നു പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾത്തേക്കും ഒരു രണ്ടുമൂന്ന് മണിക്കൂറായി അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഉണ്ടാക്കിയ പാചകം